അന്യായപരമായി അല്ലെങ്കിൽ പക്ഷപരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വ്യാജ വാർത്തകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ ഒത്തിരി ഒത്തിരി വർത്തകളൊക്കെ വായിക്കാറുണ്ട് കാണാറുണ്ട് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇതിന് മുമ്പ് വ്യാജ വാർത്തകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്ന മൊബൈൽ ഫോണിൽ കൂടെയാണ് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും ശരിക്കും മനസ്സിലാക്കാതെ അതിന് തൂക്കും തുടങ്ങലും കൊടുത്തുകൊണ്ട് ഇന്ന് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് മൊബൈലാണെന്ന് പറഞ്ഞ് കഴിഞ്ഞു അതുപോലെ തന്നെ ചിലപ്പോൾ ഈ പിന്നെ ന്യൂസ്പേപ്പറിലുള്ള വാർത്തകളിൽ ചാനലുകൾ അതു പറയുമ്പോൾ സത്യാവസ്ഥയിൽ നിന്നും ഒഴിഞ്ഞുമാറി അവരും വ്യാജ വാർത്തകൾ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതുപോലെ ടെലിവിഷൻ വാർത്തകളിൽ ഇപ്പോൾത്തന്നെ ഈയിടെ നമ്മൾ കണ്ടയൊരു വാർത്ത മുഖ്യം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് ആരും സംഭാവന അയക്കരുതെന്നും പറഞ്ഞ് ടീ വി വാർത്തകളും മൊബൈൽ വാർത്തകളൊക്ക വന്നിരുന്നു നമുക്കറിയാം ദുരന്തം വയനാട്ടിൽ നടന്നപ്പോൾ പിന്നെ ആദ്യമങ്ങാണ്ട് ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിലെ ദുരന്തനിവാരണത്തിലേക്ക് പോയ പൈസയുടെയൊക്കെ എന്തൊരോ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത് വ്യാജ വാർത്തായിട്ട് കൊടുക്കരുത് അല്ലെങ്കിലത് സംഭാവന ചെയ്യരുത് എന്നും പറഞ്ഞ് അതും നല്ല ഒരു പ്രവണതയല്ല അങ്ങനെയൊക്ക ഉള്ള വ്യാജ വർത്തകളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട് അതുപോലെതന്നെ ഈ ഞാൻ പറഞ്ഞതും മുമ്പേ സൂചിപ്പിച്ചതാണത് മൊബൈൽ ഫോണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റുള്ളവർ ഈ വ്യാജവാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കുറച്ചും കൂടി ശ്രദ്ധിക്കും കാരണം നിയമപരമായിട്ടുള്ള നടപടി വരുമെന്നവർക്കറിയാം അതുകൊണ്ട് അവരത് കുറച്ചുംകൂടി സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ വ്യാജവാർത്തകൾ നമുക്ക് ഒരിക്കൽ ഒരു വ്യാജവാർത്ത ഞാൻ ടി വി കണ്ടു ഇന്ന ഏതോ ഒരു ഭാഗത്തു നിന്ന് ഒരു സംഘമിറങ്ങി ഒത്തിരി ഗുണ്ട തട്ടികൊണ്ടുപോകുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു സംഘം വന്നു പത്തും പന്ത്രണ്ടും പേരെ ഒരു പ്രദേശത്തുനിന്ന് കല്ലമ്പലം ഭാഗം ഇങ്ങനെ തട്ടികൊണ്ടുപോയിട്ട് ആയിട്ട് ഒരു പുതിയ വാർത്ത വരികയും പ്രചരിക്കുകയൊക്കെ ചെയ്തു വാസ്തവത്തിൽ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അതല്ല അങ്ങനെ നടന്നിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള വ്യാജവാർത്തകൾ ഒത്തിരി വരുന്നതിന് ഒന്നാം സ്ഥാനം മൊബൈൽ തന്നെയാണ് അതിന് യാതൊരുവിധമായ സംശയവുമില്ല അപ്പം അത് വ്യാജവാർത്തകളുമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ടീ വിയിലും ന്യൂസ്പേപ്പറിലും വരുന്ന വാർത്തകൾ നിയമപരമായിട്ട് അവർ നേരിടേണ്ടി വരുന്നതുകൊണ്ട് സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്ന ഒരബദ്ധം പറ്റി എങ്ങാനും അറിവിലായ്മക്കുറവുകൊണ്ടൊ എങ്ങാനും വരുന്നെങ്കിൽ മാത്രമേ ആ കാര്യത്തിലുള്ളു അത് അങ്ങനെയാണ് വ്യാജവാർത്തകളുടെ ആ ലോകം ഇന്ന് ലോകത്തങ്ങനെയാണ് വ്യാജവാർത്തകൾ പറയുവാനും അത് കൈകാര്യം ചെയ്യുവാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം അതറിഞ്ഞിരിക്കണം എന്നു ഞാൻ വളരെ വിനയത്തോടുകൂടി ഈ വ്യാജവാർത്ത ഇടുന്നവരെ എല്ലാം ഓർമ്മിപ്പിക്കയാണ് വ്യാജവാർത്തകൾ നമ്മൾ പറയുവാനോ പ്രചരിപ്പിക്കുവാനോ പാടില്ല സത്യസന്ധമായിട്ട് തെറ്റാണ് മറ്റുള്ളവരുടെ ജീവൻ വച്ചുള്ള കളിയാണ് അതിലേക്ക് നമുക്ക് കടക്കേണ്ട കാര്യമില്ല വ്യാജവാർത്തകൾക്കെതിരെ നാം നിരന്തരം പോരാടണം അതിനെ പ്രോത്സാഹിപ്പിക്കരുത് അതിനുവേണ്ടി ഏത് നടപടിയും നാം സ്വീകരിക്കണം എന്ന് വളരെ സന്തോഷത്തോടും വിനയത്തോടും കൂടി ഞാൻ പറയുകയാണ്